എൻ്റെ വലിയ നേട്ടമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാന് സൊസൈറ്റിയിലാണ് പണിയെടുക്കാറുണ്ടായത് വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആ റേറ്റിനാണ് ഞാൻ പണിയെടുക്കലുണ്ടായത് പിന്നെ നല്ല രീതിയിലുള്ള വർക്കുകള് അവള് വന്നതിൽ പിന്നെ എനിക്ക് നല്ലോണം നല്ല രീതിയിലുള്ള വർക്കുകള് കിട്ടി അങ്ങനെയാണ് എനിക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റിയത് ചിലര് വീടിൻ്റെ ഐശ്വര്യാണെന്ന് പറയുന്നത് സത്യമാണ് കാരണം എൻ്റെ ഭാര്യ വന്നതിൽ പിന്നെയാണ് എനിക്കെൻ്റെ എന്താ പറയുക അഭിമാനം എല്ലാം വന്നത് ചിലർക്ക് വീടിന് ചിലര് ശരിയാവില്ല നമ്മുടെ ഭാര്യ എങ്ങനെയാണോ അതേപോലെ ഇരിക്കും നമ്മള് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കല്യാണം കഴിച്ചാൽ റെഡി ആവും കല്യാണം കഴിച്ചാൽ റെഡി ആവും എന്ന് അത് ഏകദേശം ഒക്കെ എനിക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ട് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് അവള് വന്നതിൽ പിന്നെയാണ് ഞാനൊന്ന് മെച്ചപ്പെട്ടത് അപ്പം എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാലും വലിയ നേട്ടമെന്ന് പറഞ്ഞുകഴിഞ്ഞാലും അവള് തന്നെയാണ് പിന്നെ എന്നു പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കുന്നത് അവളുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വലിയ എന്താ പറയുക ചെറിയ ചെറിയ ആഗ്രഹാണെങ്കിലും അത് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് സിംപിൾ ആയിട്ട് കിട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഞാൻ അവള് കാരണം ഞാനൊരു വണ്ടി എടുത്തു അങ്ങനെ പല സാധനങ്ങളും ഞാൻ അവള് കാരണം തന്നെയാണ് എടുത്തത് അപ്പോൾ അവളാണ് എനിക്കൊരു വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്